ഇപ്പം നമ്മൾ ബൈക്ക് യാത്ര ചെയ്യുന്ന ആളാണ് എന്നെങ്കിൽ നമുക്ക് ഇപ്പം ഒരു ലോങ്ങ് ട്രിപ്പ് രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ ട്രിപ്പൊക്കെയാണ് പോവുന്നത് എങ്കിൽ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് പറ്റിയ ഒരു റൈഡിന് പറ്റിയ ഒരു ജാക്കറ്റ് എന്നു പറയുന്ന സാധനമുണ്ട് അതാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സാധനം ഇപ്പം നമുക്ക് വണ്ടി എവിടെ എങ്കിലും മറിയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിക്ക് പറ്റിയ സാധനം ആണ് അത് അതിൽ അതുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കൈക്ക് കാലിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഓവറ് പരിക്ക് പറ്റാതെ നമ്മളെ അത് രക്ഷിക്കും പിന്നേ എന്നു പറയുമ്പോൾ വണ്ടിക്ക് വണ്ടിക്ക് ഇപ്പം ഓരോ ഓരോ പണികൾ ഇപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി എന്നു വരും നമുക്ക് അത് എന്തായാലും എന്താണ് കിട്ടുക എന്നൊന്നും പറയാൻ ല്ല ചിലപ്പോൾ പെട്രോള് തീർന്നു പോവും പക്ഷേ അപ്പം അതിനൊക്കെ വേണ്ടത് ഇപ്പം ഓരോ ഒരു ക്യാനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കുപ്പിയിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പെട്രോള് സൂക്ഷിച്ചു വയ്ക്കണം എങ്ങനെ എന്തായാലും നമ്മൾ ഒരു ലോങ് ട്രിപ്പൊക്കെ പോവുമ്പോൾ പിന്നേ എന്നു പറയുമ്പം വണ്ടിക്ക് പലതരത്തിലുള്ള പണികൾ വരും അപ്പം അതിന് പറ്റിയ ടൂൾസ് സ്പാനറ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂ ഡ്രൈവറ് അതൊക്കെ എന്തായാലും നമ്മുടെ കൈയിൽ അത്യാവശ്യമായിട്ടും വേണം അതിപ്പം പലതരത്തിലുള്ളത് ആയിരിക്കും വേണ്ടത് അപ്പം പലതരത്തിലുള്ള ടൂൾസ് ഉണ്ട് അതെല്ലാം നമ്മുടെ വണ്ടിയിൽ പക്കാ ആയിട്ടുണ്ടോ എന്നു നമ്മൾ എന്തായാലും എവിടെ എങ്കിലും പോവുന്നതിന് മുന്നെ ശ്രദ്ധിക്കണം പിന്നെ വേണ്ടതെന്നു പറഞ്ഞാൽ മെഡിക്കലായിട്ടുള്ള ബാൻഡേജ് മരുന്ന് അങ്ങനെയുള്ള ഓരോ ഓരോ കാര്യങ്ങൾ അതിപ്പം നമ്മൾ എന്തായാലും വണ്ടിയിൽ തന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ അത് പോകുന്നതിന് മുന്നേ തന്നെ അത് മേടിച്ചു ആ വണ്ടിയിൽ സെറ്റ് ചെയ്തു വയ്ക്കണം പിന്നെ ഇപ്പം നമ്മൾ രണ്ട് ആളാണ് പോകുന്നത് എങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ട ഹെൽമറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ നോക്കണം ഇപ്പം മഴക്കാലത്താണ് പോവുന്നത് എങ്കിൽ വണ്ടിയിൽ നനയാണ്ടിരിക്കാനുള്ള ജാക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് മെയിനായിട്ടും നോക്കേണ്ടത് പെട്രോള് കാര്യങ്ങളെക്കെയാണ് പിന്നെ വണ്ടിയുടെ ടയറിൽ എയറുണ്ടോ എന്നു നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ബൈക്കിലൊക്കെ പോവുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഓരോ സഥലങ്ങളിൽ എത്തുമ്പോൾ വണ്ടിൻ്റെ എന്തെങ്കിലും സ്ക്രൂവോ കാര്യങ്ങളോ എന്തെങ്കിലും ലൂസുണ്ടോ അങ്ങനെയൊക്കെ നോക്കണം ഉണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള സ്പാനറ് സ്കൂ ഡ്രൈവറ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ വണ്ടിയിൽ എന്തായാലും കിറ്റിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ചു വച്ചേ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ മോട്ടർ വെഹിക്കിളിൽ പോവുമ്പം ബൈക്കിങ്ങിൽ പോവുമ്പം നമ്മൾ ഒരു ലോങ്ങ് യാത്ര പോവുമ്പം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം പിന്നെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് വേണ്ടത് മെഡിക്കല് മെഡിക്കലിൻ്റെ ഓരോ ബാൻഡേജ് കാര്യങ്ങള് ഞാന് നേരത്തെ പറഞ്ഞല്ലോ അതേപോലെ ഓരോ സ്പാനറ് പെട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽമെറ്റ് ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ടും നോക്കേണ്ടത്